ഇന്ത്യയിലെ ഗതാഗത സംവിധാനങ്ങൾ വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ടു പൊയ് കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലേക്കു ഗ്രാമത്തിലുള്ളവർ കൂടുതലായും ഉപയോഗിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സ് പോലെയുള്ള സംവിധാനങ്ങളാണ് അവിടുത്തേക്കുള്ള മെയിനായവ മെയിനായവർ നേരിടുന്ന വെല്ലുവിളിയെന്നു പറയുന്നത് ഒന്നോ രണ്ടോ ബസ്സുകൾ മാത്രമേ ഒരു റൂട്ടിലേക്കു പോകുന്നുള്ളൂ അവരതിനെ എന്തെങ്കിലും ഒരു സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അവർക്കന്ന് ബസ്സ് കിട്ടാതിരിക്കുക പിന്നെ വളരെ ചു ചുറ്റി ഒന്നുകിൽ വരിക അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളായോ ഓട്ടോ പോലെയുള്ള സംവിധാനങ്ങളവർക്ക് ആശ്രയിക്കേണ്ടി വരും അതെന്നു പറയുന്നതവർക്കു ചിലപ്പം അവരുടെ സം സാമ്പത്തികത്തിൽ അവർക്ക് ഒരു ഉൾകൊള്ളാൻ പറ്റുന്നതാകില്ല ഓട്ടോ വീട്ടിലടുക്കെ വരികയെന്നു പറയുന്നതു വളരെ മോശമാണവർ കൂടുതൽ പൈസ അവരിൽ നിന്നു ഈടാക്കും റോഡ് മോശമാണ് അങ്ങോട്ടു വരാൻ പറ്റില്ല എന്നുള്ള ഇതും പറഞ്ഞ് ഓട്ടോ ഡ്രൈവേഴ്സ് അവരുടെ കയ്യിൽ നിന്നു പൈസ കൂടുതൽ വാങ്ങിക്കും അത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഉള്ള സംഭവം തന്നെയാണിത് അതുകൊണ്ടത് മാറ്റണം അതുപോലെ തന്നെയുള്ളതാണ് ട്രാഫിക്ക് പിന്നെ ആക്സിഡൻസ് റോഡിനു തീരെ ഇതുള്ള ഇതില്ലാത്തതു കൊണ്ടു തന്നെ എല്ലാ സംവിധാനങ്ങളും മോശപ്പെട്ട രീതിയിലാണ് മുൻപോട്ടു പൊയ്ക്കൊണ്ടിരിക്കുന്നത്